കൊല്ലം ജില്ലയിൽ തെന്മല വാലിയുടെ പ്രാന്ത പ്രദേശമായ ആര്യങ്കാവ് കഴിറുട്ടി ഇടപ്പാളയം പ്രദേശങ്ങളിലെല്ലാം അധിവസിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരായ ഞങ്ങളെ പോലെ ഉള്ളവർ വിവിധതരം വെല്ലുവിളികൾ മൃഗങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം രാവിലെ മുപ്പത് ലിറ്റർ പശുവിൻ പാൽ കടയിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു വൈകുന്നേരം പതിനഞ്ച് ലിറ്ററും മൊത്തത്തിൽ നാല്പത്തിയഞ്ച് ലിറ്റർ ഒരു ദിവസം കടയിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഞാൻ പശുവിനെ വളർത്തിയിരുന്നത് എൻ്റെ വീട് വനത്തിൻ്റെ അതിർത്തിയിലായിരുന്നു എന്നുള്ളതുകൊണ്ട് സങ്കര ഇനമായ പശുക്കളെ അതായത് അത്യുൽപാദന ശേഷിയുള്ളതും എന്നാൽ നാടൻ കലർന്നതുമായിട്ടുള്ള ഒരു മീഡിയം സൈസ് ഉള്ള പശുക്കൾ അങ്ങനെയുള്ള പശുക്കളെ കൂട്ടിൽ അടച്ചിട്ടല്ല ഞങ്ങൾ വളർത്തിയിട്ടുള്ളത് പശുവിനെ അഴിച്ച് വിടും രാവിലെ പശുവിനെ പാൽ എല്ലാം എടുത്തതിനുശേഷം അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ പശു പോയി കാട്ടിലും പരിസരപ്രദേശങ്ങളിമെല്ലാം എല്ലാം ഭക്ഷണം കഴിച്ചിട്ട് തീറ്റി ഇത് കഴിച്ചിട്ട് തിരികെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത് വൈകുന്നേരം എത്തിയില്ലെങ്കിൽ നമ്മൾ പോയി അഴിച്ചുകൊണ്ട് വരും അടിച്ചുകൊണ്ട് വന്ന് പശുവിനെ കറന്ന് പശുവിനെ പിന്നെ കൂട്ടിൽ നിർത്തി രാവിലെ പിന്നെയും പശുവിനെ വൃത്തിയാക്കി അതിനെ കുളിപ്പിച്ച് പശുവിൻ്റെ പാല് കറന്ന് അതിനെ അഴിച്ച് വിട്ട് വെള്ളവും ഇതെല്ലാം കൊടുത്ത് വളർത്തുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഞങ്ങളുടെ പശുക്കളെയോ ഞങ്ങളുടെ മൃഗങ്ങളെയോ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെയോ പോലും വളർത്താൻ പറ്റാത്ത തരത്തിൽ കാട്ട് മൃഗങ്ങൾ പെരുകി കടുവയും നമ്മുടെ ഇവിടെ സിങ്കമില്ല പക്ഷെ പകരം കടുവയുണ്ട് പുലിയുണ്ട് ചെന്നായയുണ്ട് ഈ മൂന്ന് ജീവികളാണ് പശുക്കൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഉള്ളത് അതിൽ പുലിയാണ് നായ്കൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ളത് നമ്മുടെ സുരക്ഷക്ക് വേണ്ടി നമ്മൾ വളർത്തുന്ന നായ്ക്കളെ വീട്ടിൻ്റെ മിറ്റത്ത് കയറി വന്ന് പുലി കടിച്ചെടുത്തു കൊണ്ടുപോകുന്നത് സി സി റ്റി വീ ൽ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ ദയനീയമായി ഞങ്ങൾക്ക് സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്ന് പോകുന്നു പശുക്കളെ കാട്ടിൽ അഴിച്ച് വിടുന്ന പശുക്കളെ കടുവയും പുലിയും ആക്രമിച്ച് കൊല്ലുന്നു ചെന്നായ ആക്രമിച്ച് കൊല്ലുന്നു എന്നാൽ ഇതിൻ്റെ ഭാഗമായി നാം ഇനി കാട്ടിലേക്കഴിച്ച് വിടേണ്ടതില്ല എന്ന് കരുതി നമ്മുടെ പുരയിടത്തിൽ തന്നെ കെട്ടിയിട്ട് വളർത്തുമ്പോൾ അവിടെവന്ന് പുലി ആക്രമിക്കുന്നു കടുവ ആക്രമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വനപാലകരോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വനപാലകർ നിസ്സഹായകരായി കൈ മലർത്തി കാണിക്കുന്നു അവരിൽ ആകെയുള്ളത് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ വനപാലകർ കടന്ന് പോകുന്നു കാട്ടുമൃഗങ്ങളിൽ വളർന്ന് വരുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വന്ന് വന്ന് വന്ന് വന്ന് വന്ന് വന്ന് ഞങ്ങളെ പോലെയുള്ളവരെല്ലാം പശുവളർത്തൽ അവസാനിപ്പിച്ച് കഴിഞ്ഞു ഇപ്പം ഞങ്ങളും കാശ് മുടക്കി കടയിൽനിന്ന് പാൽ വേടിച്ച് കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മിക്ക വീടുകളിലും ഇപ്പോൾ നായ്ക്കളില്ല എല്ലാ നായ്ക്കളെയും പുലി പിടിച്ചുകൊണ്ട് പോകുന്നു അഥവാ നായ്ക്കളെ ഏതെങ്കിലും തരത്തിൽ കൃഷിക്കാരൻ വളർത്തുന്നു എങ്കിൽ അവൻ ഇരുമ്പ് കൂട്ടിനകത്ത് രാത്രിയിൽ അടച്ചിട്ട് പകലും പട്ടിയെ വളർത്തേണ്ട നായ്ക്കളെ വളർത്തേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിനെതിരെ നമ്മൾ ഈ പറയുന്ന വനപാലകരെ അറിയിച്ച് കഴിയുമ്പോൾ അവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിസ്സഹായരായി കൈ മലർത്തി കാണിക്കുന്നു അവരിൽ ചിലപ്പോൾ റാപ്പിട് ആക്ഷൻ ഫോഴ്സിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു നേരത്തെ നമ്മൾ പശുവിനെ വളർത്തുമ്പോൾ നമ്മളുടെ പാൽ വാങ്ങിക്കുകയും നമ്മുടെ വീടുമായി സഹകരിക്കുകയുമൊക്കെ ചെയ്യ്തുകൊണ്ടിരിക്കുന്ന അയൽപക്കത്തുകാരായിട്ടുള്ള ജനങ്ങളുണ്ട് അവരെ നമ്മൾ നമ്മളോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാൻ വരികയും നമ്മുടെ പശുവിനെ കറക്കാൻ സഹായിക്കുകയും പശുവിനെ കുളിപ്പിക്കാൻ സാഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു അത്യാവശ്യ കേസിൽ എവിടെക്കേലും ഒന്ന് മാറി മാറി പോകാനുള്ള സാഹചര്യം വളരെ കുറവാണ് അഥവാ മാറിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ പറയുന്ന നമ്മുടെ അയൽപക്കത്തുള്ളവരായിട്ടുള്ള സുഹൃത്തുക്കളാണ് നമ്മളെ വന്ന് നമ്മുടെ ഈ പശുക്കളെ സംരക്ഷിക്കുകയും നമ്മുടെ പശുവിനെ കറക്കാനുമൊക്കെ സഹായിക്കുകയും നമുക്ക് പകരം സംവിധാനം ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഇപ്പോൾ നമ്മൾ പശുവിനെ വളർത്തൽ നിർത്തി എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല കാരണം ഇപ്പോൾ നേരത്തെ നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥതയിലൂടെ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ വീടിൽ തന്നെ സഹോദരന്മാരുണ്ട് നമ്മുടെ കൂടെ തന്നെ സഹോദരിമാരുണ്ട് സഹോദരന്മാരുടെ ഭാര്യമാരുണ്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം പശുവിനെ വളർത്തലിൽ സഹായിക്കുമായിരുന്നു സഹകരിക്കുമായിരുന്നു ഇന്ന് ഇപ്പോൾ മൊത്തം അണുകുടുംബങ്ങളായി മാറി അണുകുടുംബങ്ങളായി മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അയൽപക്കത്തുള്ള സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കേണ്ട സ്ഥിതിയിലേക്ക് കടന്ന് വന്നത് പക്ഷെ പശുവിനെ വളർത്തൽ ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ളവർ അവസാനിപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർഥ്യം ഇനി പശുവുമായി ബന്ധപ്പെട്ട വിവിധ വിവിധ സംഭവങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പശുവിനെ കാട്ടിൽ അഴിച്ച് വിട്ട് പ്രസവിക്കാറായ പശുവിനെ അഴിച്ചുവിട്ട് കാട്ടിൽ പോയി ഒരു പശു പ്രസവിക്കുകയാണെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ സുരക്ഷിതമായി അവിടെ പുൽതകിടിയിൽ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം പശു വീട്ടിൽ ഓടി വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ നിരവധി പ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ പിന്നെ കിടക്കുന്ന നമ്മുടെ മധുരസ്മരണകളുടെ ഭാഗമാണ്